കോഴിക്കോട് ജില്ലയിലെ ലഭ്യമായ ചില പ്രാദേശിക ഗതാഗത സംവിധാനങ്ങളാണ് കേരളാ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതുപോലെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് പിന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ കോർപ്പറേഷൻ എന്നിങ്ങനെയുള്ളതൊക്കെ ജഗ കോഴിക്കോട് ജില്ലയിലെ ഗതാഗത മാർഗ്ഗങ്ങളാണ് ഇവ അവിടെയുള്ള താമസക്കാർക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്കിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉള്ള ആൾക്കാർക്ക് എവിടെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും പോകാം ഇപ്പോൾ അവർക്കിപ്പോൾ ട്ര ട്രയിനാണെങ്കിലും ഇപ്പം വിമാനമാണെങ്കിൽ കൂടുതൽ ചെലവായിരിക്കും അപ്പോൾ അവർക്ക് ട്ട ട്രെയിൻ മാർഗ്ഗത്തിലൂടെ അവർക്ക് ഏ ലോകത്തിലെ ഏത് കോണിൽ വേണമെങ്കിലും അവർക്ക് പോകാം പക്ഷേ അവർക്ക് പിന്നെ അവിടെ ട്രെയിന്റേയും അതുപോലെ വിമാനങ്ങളുടെയും ഒക്കെ പോവുന്നതൊക്കെ സൗണ്ട് ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് മാ പ്രശ്നം തന്നെയാണ് അത് ശബ്ദ മലിനീകരണം ഉണ്ടാക്കാനൊക്കെ കാരണമാകുന്നുണ്ട് ഇതുപോലെത്തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരുപാട് ആൾക്കാര് ഇപ്പോൾ വയനാട്ടിലുള്ളവരായിക്കോട്ടെ അതുപോലെ ഏതൊരു സ്ഥല ഏതൊരു ഭാഗത്തുള്ള ആൾക്കാരായിക്കോട്ടെ കോഴിക്കോട് എയർപ്പോർട്ടിലും അതുപോലെ ട്രെയിനുകളിലൊക്കെ ആശ്രയിച്ച് അവിടെക്കൊക്കെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കോ രാജ്യത്തൊക്കോ പോകാൻ വേണ്ടിട്ട് കോഴിക്കോട് ജില്ലയിലാണ് പോവുന്നത് എന്നാൽ ഇന്ന് കണ്ണൂരില് എയർപ്പോർട്ട് വന്നതോട് കൂടി കണ്ണൂരും കോഴിക്കോടും പോവും അതിനു മുമ്പ് കോഴിക്കോട് ജില്ലയിലേക്ക് തന്നെ അത് ഭയങ്കര ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകളും അതുപോലെ ആൾക്കാരുടെ അല്ലെങ്കിൽ ഇപ്പോൾ കോഴി ജില്ലയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടാനൊക്കെ കാരണമാണ് അത് ചൂടും ഒന്നാമത് കോഴിക്കോട് ജില്ലയിൽ ചൂട് കൂടുതലാണ് അപ്പം ആൾക്കാരുടെ വരവോടുകൂടി ചൂട് പരമാവധി കൂടുന്നുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങളും വരുന്നുണ്ട് പിന്നെ അവിടെയുള്ള ഗതാഗത സംവിധാനങ്ങൾ ഒരുപാടാണ് അതുപോലെ അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ മെച്ചപ്പെടുത്തുന്നത് ഒരു ചിലരെ മെച്ചപ്പെടും ചിലർക്കത് ഒരു ഒരുപാടാൾക്കാർക്ക് തൊഴിൽ മേഖലയും അതിലൂടെ വളർ വളർന്നു വരുന്നുണ്ട്